ഹലോ മോനേ ഹലോ ആ നമസ്കാരം നമ്മുടെ സ്ഥലത്തിന്റെ ബ്രോക്കറാണോ എനിക്ക് ഇത്തിരി സ്ഥലം വേണമായിരുന്നു കോട്ടയം സൈഡില് അതെ നമുക്ക് നമുക്ക് വില ഒത്തിരി കൂടാൻ പാടില്ല കാരണം ഈ കെട്ടിടമെന്ന് പറഞ്ഞാല് മൊത്തം റഫായിട്ട് കിടക്കുന്ന വല്ലതുമുണ്ടെങ്കില് നല്ലതായിരിക്കും കാരണം നമ്മള് അതിനകത്തിട്ട് കെട്ടിത്തിരിച്ചോളാം അങ്ങനെ വല്ലതും കിടപ്പുണ്ടോ അതെയതെ എനിക്കൊരു അമ്പത് സെൻറ്റ് ഇരുന്നുകൊള്ളട്ടെ കുഴപ്പമില്ല എനിക്ക് വലിയൊരു ഈ നമ്മുടെ ഒരു ജൗളിക്കട ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ കാരണം ഒത്തിരി കാര്യങ്ങള് അതിനകത്ത് ചെയ്യാൻ വേണ്ടിയാണ് അതായത് ഫുള്ളും ബില്ഡിങ്ങ് ആയിരിക്കണം വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് വണ്ടിയിടാൻ വേണ്ടി ഒരു അന്പത് സെൻറ് വേറെയും വേണം ഇതിനോട് ചേർന്നുതന്നെ

ആ അതിൻ്റെ അടുത്തുതന്നെ വേണം കാരണം ഇവര് ഈ നമ്മള് വണ്ടി കൊണ്ടുപോയിടാനായിട്ട് ആൾക്കാരെയൊക്കെ ഏർപ്പാട് ചെയ്തുകൊള്ളാം അപ്പം വേറെ ഒത്തിരി ദൂരം പോകാതെ തൊട്ടടുത്തൊക്കെ തന്നെയാണെങ്കിൽ വണ്ടിയിട്ട് ആൾക്കാര് പർച്ചേസ് ചെയ്തുകഴിഞ്ഞ് തിരിച്ചുവരുമ്പോള് വണ്ടി എടുത്തുകൊടുക്കുക വണ്ടി ഇതിനകത്ത് ഇടാനുള്ള സൗകര്യമില്ല കാരണം നമുക്കത് പ്ലാൻ കൊടുക്കുമ്പോള്ത്തന്നെ വണ്ടി പാർക്കിംഗ് സ്ഥലം വേറെ കൊടുക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് താമസിയാതെ തന്നെ വേണ്ടതാണ് അപ്പം ഉടന് തന്നെ അതുകൊണ്ടാണ് ഞാന് ചോദിച്ചത് റഫായിട്ട് കിടപ്പുണ്ടെങ്കില് എനിക്കിനി അതിനകത്ത് പ്ലാൻ അതിനകത്തിത് കെട്ടിത്തിരിക്കുന്ന മാത്രം കാര്യം നോക്കിയാല് മതിയല്ലോ ആ ലോറിയൊക്കെ ചെല്ലുന്ന സ്ഥലമല്ലേ അമ്പത് മീറ്റർ അല്ലെ ആ ആ ആ അല്ല വെള്ളമൊന്നും നമുക്ക് പ്രശ്നമില്ല കാരണം വെള്ളം നമ്മളെല്ലാം ടാങ്കറിലാണ് വെള്ളമടിക്കുന്നത് അതിനകത്തൊന്നും പ്രശ്നമില്ല വെള്ളത്തിൻ്റെ കാര്യം നോക്കേണ്ട പിന്നെ ഇവര്ക്ക് സ്റ്റാഫിന് താമസിക്കാനായിട്ടും വേണം അതിനുമൊരു വേറൊരു ബിൽഡിങ്ങും വേണം ആ ഇത് ഇതെല്ലാം ഇതെല്ലാം അടുത്തുതന്നെ വേണം അല്ലെന്നുണ്ടെങ്കില് നമ്മളീ വണ്ടിയില് ഈ സ്റ്റാഫിനെയൊക്കെ കൊണ്ടുവരികയും കൊണ്ടുപോകുകയുമൊക്കെ ചെയ്യേണ്ടേ അടുത്ത ആ പത്ത് ലക്ഷം രൂപ ക്യാഷ് ഒരു വിഷയമല്ല അത് പൈസയുടേതൊന്നുമല്ല അത് നമുക്ക് പ്രശ്നമല്ല ആ നമുക്ക്

ആ നമ്മുടെ ബാങ്കില് ക്യാഷ് റെഡിയായി കിടക്കുകയാണ് എപ്പോഴാണ് എപ്പോഴാണ് ഞാൻ എന്നാല് തിങ്കളാഴ്ച വരട്ടെ ആ എനിക്ക് നാളെ ഞായറാഴ്ച വേറെയൊരു പരിപാടിയുണ്ട് നമ്മുടെ ജെ സി എയുടെയൊക്കെ നേതൃത്വത്തില് ഒരു ഓക്കെ ഓക്കെ